സ്കൂളുകളില് പലതരം പഠ്യേതര പദ്ധതികളൊക്കെയുണ്ട് അത് എങ്ങനെ എന്ന് വെച്ച്കഴിഞ്ഞാല് ഇപ്പം ചിത്രരചനാ മത്സരങ്ങള് നടത്തുന്നുണ്ട് പിന്നെ കായിക വിനോദങ്ങള് നടത്തുന്നുണ്ട് കായികം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഓട്ടം ചാട്ടം പിന്നെ ലോങ്ജംപ് അങ്ങനത്തെ പരിപാടികളൊക്കെ സ്കൂളുകളില് നടത്തുന്നുണ്ട് സ്കൂളുകളിൽ നിന്നാണ് നമ്മളെന്ത് ചെയ്യുക വലിയ വലിയ ഇതിലേക്ക് പോവുക ഇങ്ങനെ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോവുക അങ്ങനെ അങ്ങനെ വലിയ വലിയ ലെവലിലേക്കൊക്കെ പോകുന്നത് സ്കൂളുകളിൽ നിന്നാണ് അവിടെ നിന്നാണവര് ഓരോ സെലക്ഷൻ അങ്ങനത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഒളിമ്പിക്സില് വരെ എത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പിന്നെയുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ആർട്സ് ആർട്സ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഡാൻസും നമ്മളുടെ കഴിവ് എന്താണോ അവിടെയുള്ളത് അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സ്കൂളുകളിലൊക്കെ ഒരുക്കിത്തരുന്നത് അപ്പം പരമാവധി നമ്മളത് എന്താ പറയുക പ്രയോജനപ്പെടുത്തി നല്ലരീതിയിലുള്ള സമ്മാനങ്ങളും എല്ലാ കാര്യങ്ങളും കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉഷാറായിട്ട് നമുക്ക് അടുത്തതിന് ഒക്കെ അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്യാനൊക്കെ ഇത് ഒരു പ്രചോദനമാകും പിന്നെ സ്കൂളുകളിൽ തന്നെ നമ്മള് ചെയ്യുന്നതിന് എല്ലാം സമ്മാനവും കാരിനങ്ങളുമൊക്കെ കിട്ടുന്നതാണ്